ഇത് ഗൈഡ് അല്ലേ കാസർഗോഡത്തെ ഗൈഡ് അല്ലേ ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ ഓക്കെ ഞങ്ങൾ ആ ഞങ്ങള് കാസർഗോഡ് വരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്താ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഏതാ കാണാൻ ഉള്ളത്

എ എന്താണ് റാണിപുരത്തെന്താ നമുക്ക് ഒരു വ്യൂ ആയിട്ടുള്ളത് എന്താണ് ആ ഓക്കെ ബേക്കൽ ഫോർട്ട് ഉണ്ടോ ആ അതെ ഞങ്ങള് അവിടുന്ന് വരുവാണ് മാം ഞങ്ങൾ ഇപ്പോൾ മംഗ്ലൂർ എയർപോർട്ടിൽ ആയിരിക്കും വരിക അവിടെ ആയിരിക്കും ഇറങ്ങുക ഓക്കെ അങ്ങനെ ആണെങ്കിൽ വേറെ ഏതാ ബേക്കലും റാണിപുരം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ മറ്റേ ലെ ബേക്കൽ ഫോർട്ട് എങ്ങനെയാണ് കുറെ നേരം നടന്ന് കാണാൻ അങ്ങനെ കുറച്ച് ടൈമ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉണ്ടോ അവിടെ ഞങ്ങള് നെക്സ്റ്റ് ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിൽ ആയിരിക്കും ഞങ്ങൾ ഒരു പത്ത് ദിവസത്തെ ടൂർ ആണ് പ്ലാൻ ചെയ്തിട്ട് ഉള്ളത് അതിൽ ഒര് അഞ്ച് ദിവസം ആണ് കാസർഗോഡ് ഇത് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ അങ്ങനെ ആണല്ലേ ഓക്കെ എത്ര ദിവസത്തെയാണ് പാക്കേജ് എത്ര ദിവസത്തെയാണ് ഓക്കെ രണ്ട് ദിവസം ആണല്ലേ ഓക്കെ ഓക്കെ ആ ഞങ്ങൾ ഒരു ആ ഓക്കെ ഞങ്ങളൊരു നാല് പേര് ഉണ്ടാകും ഓക്കെ ശരി ശരി താങ്ക്യൂ ഓക്കെ താങ്ക്യൂ